ഹലോ ആ സാറേ നമുക്ക് പുതിയ പാട്ടിൻ്റെ ട്യൂൺ ഓക്കെ ആയിട്ടിണ്ട് ഞാനത് സാറിന് വാട്ട്സപ്പില് അയച്ചിട്ടുണ്ട് സാറത് കണ്ടായിരുന്നോ സാറിനിപ്പോള് ഏത് മ്യുസിക്കാണ് വേണ്ടത് അല്ല സാറിന് സാറിനിപ്പോള് ഏത് ബീറ്റിലാണ് വേണ്ടത് അതായത് ലാസ്റ്റ് ഞാൻ ലാസ്റ്റ് പേജാണോ മാറ്റേണ്ടത് ട്യൂണ് ആണോ സാറേ അപ്പം കുറച്ച് ഫണ്ടും കൂടെ ഇങ്ങോട്ട് തരേണ്ടിവരുമേ ആ എപ്പോഴാണ് പടത്തിൻ്റെ പൂജ ഇത് പൂജയ്ക്ക് മുന്നേ വേണമെന്നല്ലേ പറഞ്ഞത് എപ്പോഴാണ് പൂജ ആകർഷിക്കണോ സാറിനിപ്പോള് എങ്ങനെയാണ് ബീറ്റ് വേണോ മെലഡി വേണോ ആണോ ഏതാണ് നായകനാണോ സാറേ ഓ സാറേ അപ്പോഴേ സാറേ സാറേ സാറേ അപ്പോള് ഈ പാട്ടിൻ്റെ ലിറിക്ക്സ് പോരാ വരിയും വരികള് പോരാ കുറച്ചുംകൂടെ നല്ലൊരു കിട്ടുകയായിരുന്നെങ്കില് വരികള് കിട്ടുകയായിരുന്നുവെങ്കില്ഇപ്പോള് അതൊന്ന് മാറ്റിയെഴുതിക്കാമോ സാറേ ആണോ മീറ്റിങ്ങായിരുന്നു അല്ലേ ആ സാറിത് എപ്പോഴാണ് ഷൂട്ട് ആരംഭിക്കുകയെന്ന് പറയാമോ ആ അ സാറേ അപ്പോഴെ ആണോ സാറേ ആ സാറേ സംവിധായകൻ്റെ പേരെന്തായിരുന്നു വിനയ കുമാര് ആണോ ആ അ സംവിധായകന് അതിന് ആ ഓക്കെ സാറേ ഈ പടം ഹിറ്റാകുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ ആ അത് അതിനല്ലേ സാറേ ഞാന് പാട്ടെഴുതുന്നത് ച്ചെ പാട്ട് ഞാൻ കമ്പോസ് ചെയ്യുമെന്നേ അത് ആ ഓക്കെ സാറേ എന്താണ് സാറേ ആ സാര് സാര് എന്നാലെ ഒരു പത്ത് കെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടാമോ കാരണം ആ കാരണം കാരണം ഓ സാറെന്നാല് ഓക്കെ സാർ ഞാൻ വിളിക്കാം സാറേ ശരി ഓക്കെ സാറേ ശരി